ഞാൻ ഓണ്ലൈനിൽ കൂടെ ഭക്ഷണം എത്തിക്കുന്നതിന് ഡെലിവറി ബോയിയെ വിളിച്ചിരുന്നു സൊമാസ് സോമാറ്റോ കമ്പനിയില് നിന്ന് ഒരു ഡെലിവറി ബോയ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളില് എനിക്ക് എന്റെ വീട്ടിൽ പിന്നെ ബിരിയാണി അവർക്ക് എത്തിച്ചു വളരെ നല്ല ഒരു സേവനമാണ് അവര് കാഴ്ചവെച്ചത് കാരണം ഞാന് വിശന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഓര്ഡര് ചെയ്യുകയും പത്ത് മിനിറ്റിനുള്ളില് ഡെലിവറി ബോയ് അവിടെ വീട്ടില് കൊണ്ടുവന്ന് ഭക്ഷണം എത്തിക്കുകയും ചെയ്തു എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ തന്നെ ഇവർ ഭക്ഷണം എത്തിക്കുന്ന റെസ്റ്റോറൻറിലെ സേവനം മികച്ച ഒരു സേവനം മികച്ച പ്രവര്ത്തനമാണ് അവർ കാഴ്ചവെച്ചത് പിന്നെ റെസ്റ്റോറെന്റില് കയറി ആഹാരം ചോദിച്ചു വളരെ സ്പീഡില് തന്നെ അവർ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ മേശപ്പുറത്ത് എത്തിച്ചു അവരുടെ ഈ സേവനത്തിന് ഭക്ഷണത്തിന്റെ ഗുണവാര നിലവാരവും നല്ലത് തന്നെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു